ഉച്ചയൂണിനും അത്താഴത്തിനും സാധാരണ നമ്മുടെ വീട്ടില് ചോറു തന്നെയാണ് നമ്മള് കഴിക്കാറ് ചോറിൻ്റെ കൂടെ ഉച്ചക്കെന്താ വെക്കുന്നത് അതുതന്നെയാണ് ബാക്കിയുണ്ടെങ്കിൽ അത് കൂട്ടും അല്ലെങ്കിൽ വേറെ എന്തെകിലും വയ്ക്കും ഉച്ചയ്ക്ക് ചോറിനെന്നുവെച്ചാൽ ചോറും പരിപ്പ് പയറ് മുതിര ഇതിലേതെങ്കിലുമൊന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചാറോ ഉരുളകിഴങ്ങ് ചാറോ വെളളരിച്ചാറോ അതുപ്പോലെയുള്ള എന്തെങ്കിലുമൊരു വിളമ്പുന്ന കറിയുണ്ടാകും അതുപ്പോലെ എന്താ മീനോ അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ എന്തെങ്കിലുമൊന്നുണ്ടാകും എപ്പോഴും ഉണ്ടാകുമെന്നൊന്നുമില്ല ഇതിൽ ഏതെങ്കിലുമൊന്നുണ്ടെങ്കിൽ അത് മീനൊക്കെയാണെങ്കിൽ കൂടുതലും വറുത്തിട്ടാണ് കഴിക്കാറ് കഴിക്കാനിഷ്ടം വീട്ടിലെല്ലാവർക്കും അതുപോലെ എൻ്റെ അമ്മക്കൊക്കെ വരട്ടിയതാണ് കൂടുതലിഷ്ടം അതുകൊണ്ട് രണ്ട് കഷ്ണം എടുത്തു വരട്ടിയതും ഉണ്ടാകും അതുപ്പോലെ വറത്തതും ഉണ്ടാകും പിന്നെന്തെങ്കിലും ഉപ്പേരിക്കെന്തെങ്കിലും ഉണ്ടെങ്കില് ഉപ്പേരിയുണ്ടാകും ഇതൊന്നുമില്ലെങ്കിൽ വെറുമൊരു വിളമ്പുന്ന കറിയും അച്ചാറും കൂട്ടിയാണ് ഞങ്ങള് കഴിക്കാറുണ്ട് അതുപ്പോലെ രാത്രിയാണെങ്കിലും ഇതിൻ്റെ എന്താണ് ബാക്കി അതാണ് കഴിക്കാറ് അല്ലെങ്കിൽ ചില ചിലദിവസങ്ങളിലൊക്കെ രാത്രിയെന്തെങ്കിലും ഒന്നുങ്കില് പൊറോട്ടയോ കഴിക്കാനൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് വാങ്ങും കറി വീട്ടിൽ തന്നെ ഇണ്ടാക്കും ചിക്കൻ വാങ്ങി ചിക്കൻക്കറി ഉണ്ടാക്കും അതുപ്പോലെ ഇപ്പൊൾ എന്തെങ്കിലും അ ഗസ്റ്റോ ആരെങ്കിലോ ഒക്കെയുണ്ടങ്കില് ചപ്പാത്തി അല്ലെങ്കിൽ പൂരി അല്ലേൽ നെയ്പത്തൽ ഇങ്ങനെ എന്തെങ്കിലുമൊരു എന്തെങ്കിലൊരു കടിയാക്കും